നമ്മള വീടിൻ്റെ അടുത്തിങ്ങനെ വേസ്റ്റ് വീഴുമ്പോൾ വേസ്റ്റ് വെള്ളം വീഴും ആ വെള്ളം വീണിട്ടാകുമ്പോൾ നമ്മള മുമ്പിലാന്നെ ങ്കിലും നമ്മ അവരോട് പറയും അവർ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നമ്മ ഹെൽത്തിൽ പോയിട്ടറിയിക്കും അന്നേരം ഹെൽത്തിൽ നിന്നാരെങ്കിലും വന്നിട്ട് അവരോട് സംസാരിച്ചിട്ടാകുമ്പം അതവർ ശരിയാക്കും അതുപോലെതന്നെ നമ്മളെ ഫാമിലിയാണെങ്കിൽ വലിയ ഫാമിലിയാണ് അന്നേരം ഒരു നാലഞ്ച് മക്കളുണ്ടാകുമ്പോൾ അമ്മക്ക് സുഖമില്ലായിരിക്കുമ്പോൾ ഒരു മരുമകളെ കൊണ്ട് നോക്കാതിരിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമല്ലേ ആ പ്രശ്നത്തിന് അങ്ങനെ നമ്മ എട്ടമ്മാരെ മൂത്തവരെ വിളിക്കും വി അപ്പം എന്തെങ്കിലും അതിനില്ലേ എന്തെങ്കിലും കണ്ടെത്തണം നോക്കാനിനി വയ്യ അന്നേരം ഏട്ടനും ഏട്ടിയെല്ലാം വരും മാമ മാമനെളാപ്പനെല്ലാം വന്നിട്ട് അവർ സംസാരിക്കും സംസാരിച്ചിട്ടാകുമ്പോൾ നമ്മ വീട്ടുകാർ തന്നെയാകുമ്പോൾ വലിയ പ്രശ്നമാകും ആ പ്രശ്നമായിട്ടാകുമ്പം അവർ വരും അവർ വന്നിട്ടാകുമ്പം സംസാരിച്ചിട്ട് അമ്മേനെ നോക്കാൻ ഒരാളെ നോക്കാൻ ഒരാളെനിർത്താം എല്ലാർക്കും നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരാളെ നിർത്താമെന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നം അങ്ങനെ സോൾവാക്കും അതുപോലെതന്നെ ഈ മഴ വരുന്ന സമയത്ത് മഴ വെള്ളം നമ്മളെ വീട്ടിൽ വന്നെങ്കിൽ നമ്മ അവരോട് പറയും ഈ മഴ വെള്ളം വീഴുമ്പോൾ അതിനെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ വീണിട്ട് ചളി വെള്ളം നിൽക്കും കൊതുക് വരും അങ്ങനെ പറഞ്ഞിട്ടാകുമ്പം അവർക്ക് കേട്ടില്ലെങ്കിൽ നമ്മ അത് പഞ്ചായത്തിലറിയിക്കും പഞ്ചായത്തു നിന്ന് ആരെങ്കിലും വന്നിട്ട് അതിനെ അവരോട് സംസാരിച്ചിട്ടാകുമ്പം ആ പ്രശ്നം അങ്ങനെ ശരിയാകും അതുപോലെതന്നെ അപ്പുറത്തെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ടെങ്കിൽ നമ്മ പോകും പോയി ഇടപെടും ഇടപെട്ടിട്ട് ശരിയാക്കും അന്നേരം അവർ ഫാമിലിയാണെങ്കിലും നമ്മ പോയി അവരോട് സംസാരിക്കും അന്നേരം അവർക്ക് തോന്നും ആ ഇത് പ്രശ്നമാക്കണ്ടത്ര ഇതില്ല പിന്നെ പ്രശ്നമാക്കുന്നില്ലയെന്ന് പറഞ്ഞിട്ട് അവർ അത് ശരിയാക്കിയിട്ട് നിർത്തും അതുപോലന്നെ ഇപ്പോ എന്തെങ്കിലും ഒരു കല്യാണത്തിൻ്റെ വീട്ടില് വല്യ കല്യാണല്ലാന്നൊണ്ടെങ്കി അവിടെ കൊറേ ആൾക്കാറും കൂടിയന്നെ ആണ്ട് എന്തെങ്കിലും തട്ടി മുട്ടിയെന്ന് പറഞ്ഞിട്ട് ആടെ വലിയ പ്രശ്നമാക്കും ആ പ്രശ്നമാകുമ്പം നമ്മ അതിൽ ഇടപെടും ഇടപെട്ടിട്ടിങ്ങനെ പ്രശ്നമൊന്നും ചെയ്യുക കല്യാണ വീടല്ലേ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആക്കാൻ പാടില്ലയെന്ന് പറഞ്ഞിട്ട് അതിൽ ഇടപെട്ടിട്ട് അതിനെ ശരിയാക്കും അതുപോലെതന്നെ പിന്നെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെ പോകുമ്പം അവിടെ എവിടെയെങ്കിലും രണ്ടാൾ തല്ലാക്കുന്നുണ്ടെങ്കിൽ നമ്മ ആടെ ഇടപെടും ഇടപെട്ടിട്ട് പറയും റോട്ടിലെല്ലാം തല്ലാക്കാൻ പാടില്ല അത് ശരിയല്ല നമ്മ ഇടപെട്ടത് കൊണ്ട് ആ പ്രശ്നം ആടെ ശരിയാകും അവരങ്ങനെ പോകും അതുപോലെതന്നെ നിങ്ങൾ ഇങ്ങനെ പോകുന്ന പോകുമ്പോൾ വേസ്റ്റെല്ലാം കൊണ്ടിടുന്ന കണ്ടിലെങ്കിൽ നമ്മ പറയും വേസ്റ്റങ്ങനെ ഇടാൻ പാടില്ല അതിന് ആൾ വരുന്നുണ്ട് പഞ്ചായത്തു നിന്ന് അവരുടെ കയ്യിൽ കൊടുക്കണം ഇങ്ങനെ റോഡ് സൈഡൊന്നും ചാടിക്കൂട അന്നേരം അവർ നമ്മളോട് പ്രശ്നമാക്കാൻ വരും അപ്പം നമ്മ അതിനെ പറ്റിയിട്ട് അവരോട് പറയും ഇങ്ങനെ ചാടീൻകാർക്ക് ദോഷാ അങ്ങനെയെല്ലാം പറയുമ്പം അവർക്ക് മനസ്സിലാകും അവർ മനസ്സിലായിട്ട് പിന്നെ അവർ ചാടില്ല അങ്ങനെ ചാടുന്നത് കുറക്കും അവർ വീട്ടിൽ തന്നെ ശേഖരിക്കും എന്നിട്ട് പഞ്ചായത്ത് നിന്ന് ആൾ വന്നിട്ടാകുമ്പം അവർ കൊടുക്കും അത് അപ്പം ആ പ്രശ്നം അങ്ങനെ ശരിയാക്കാൻ പറ്റും പിന്നതുപോലെ മക്കളിങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ അച്ഛനും അമ്മയും നല്ലവണ്ണം തമ്മിലിങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കും അപ്പം മക്കൾ ഇങ്ങനെ പറയും അച്ഛാ നിങ്ങ വഴക്കിടണ്ട നമ്മൾ പഠിച്ചോളാം അന്നാല് അമ്മ പറഞ്ഞു കൊണ്ടിരിക്കും പഠിക്ക് പഠിക്ക് അന്നാലും മക്കൾ പഠിക്കാതിരിക്കുമ്പോൾ അച്ഛനും ദേഷ്യപ്പെടും അമ്മയും ദേഷ്യപ്പെടും അപ്പം ആടെ വലിയവർ പ്രശ്നമാക്കും പ്രശ്നമായിട്ടാകുമ്പം മക്കളൊന്ന് ഇരുന്ന് പഠിക്കും അപ്പോൾ ആ പ്രശ്നം മക്കളും ശരിയാക്കും അതുപോലെ വേറെ നമുക്ക് കിണർ വെള്ളം കുടിക്കാൻ വെള്ളമില്ലാതിരിക്കുമ്പോൾ നമ്മ പഞ്ചായത്തിൽ പോയിട്ടറിയിക്കും നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നില്ല നമുക്ക് ബോറിൻ്റെ വെള്ളം ഭയങ്കര സ്മെല്ല് അപ്പം നമുക്ക് മറ്റേ പഞ്ചായത്തു നിന്ന് വെള്ളം ഇറക്കി തന്നപോലെയാക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പഞ്ചായത്തിൽ പോയിട്ടാകുമ്പം അവരത് ആയെന്ന് പറഞ്ഞിട്ടത് ശരിയാക്കും അവർ പഞ്ചായത്തു നിന്ന് വെള്ളമിറക്കുന്നതു പോലെയാക്കും അപ്പോൾ ആ പ്രശ്നം അങ്ങനെ ശരിയാകും അതുപോലെതന്നെ വേറെ ഇങ്ങനെ അടുത്ത വീട്ടിലെല്ലാം ഇങ്ങനെ പ്രശ്നമെന്നുണ്ടെങ്കിൽ നമ്മ ആടെ പോകും എന്ത് പ്രശ്നമാണെന്ന് ചോദിക്കും അപ്പം അവരിങ്ങനെ പറയും തമ്മിൽ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നാൽ നമ്മ പോയി ഇടപെടുമ്പോൾ ആ പ്രശ്നം ശരിയാകും അതുപോലെതന്നെ വേറെ ഇങ്ങനെ തല്ലാക്കുന്നുണ്ടാകും മക്കളെല്ലാം എന്നിട്ട് അമ്മമാർ പോയി ഇടപെടും അപ്പം ഏട്ടനും അനിയനും തല്ലാക്കുന്നുണ്ടെങ്കിൽ അമ്മ പോയിട്ടിടപെടും ഇടപെട്ടിട്ട് അമ്മ മക്കളോട് രണ്ടാളോടും പറയും നിങ്ങ തല്ലാക്കാൻ പാടില്ല തല്ലാക്കുന്നത് ശരിയല്ല അപ്പോൾ അങ്ങനെ തല്ലാക്കണ്ടയെന്ന് പറഞ്ഞിട്ടാകുമ്പം അമ്മ പറഞ്ഞിട്ടാകുമ്പോൾ ആടെ പ്രശ്നമില്ല ആടെ പ്രശ്നം ശരിയാകും മക്കളും തല്ലാക്കുന്നത് നിർത്തും അതുപോലന്നെ പിന്നെ വേറെ ഇങ്ങന അടുത്ത് എന്തെങ്കിലും സ്കൂളിൽ പോകുമ്പോഴാ ആടെ എന്തെങ്കിലും മക്കൾ തല്ലായാൽ അതിന് അമ്മ ടീച്ചറെ കാണും ടീച്ചറെ കണ്ടിറ്റ് ടീച്ചറോട് പറയും കാര്യങ്ങൾ ഈ മക്കളിങ്ങനെ തല്ലാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങ അതിൽ ഇടപെടണം ഇടപെട്ടിട്ട് ആ പ്രശ്നം ശരിയാക്കി കൊടുക്കണം നമ്മുടെ അവിടുന്ന് മക്കളെന്നും ഇടപെട്ടാൽ ഇത് ശരിയാകില്ല അപ്പം ടീച്ചറും പേരൻ അമ്മയും കൂടിയാലെ ആ തല്ലിൻ്റെ എന്തെങ്കിലും പ്രശ്നം ശരിയാകുമത്രെ അങ്ങനെ പറയുമ്പോൾ ആ മക്കളവർ തല്ലാക്കുന്നത് നിർത്തും അവർ ശരിയായിക്കോളും അതെപോലെ